ഹലോ സാർ വിള ഇൻഷുറൻസിൻ്റെ പോളിസിയ്ക്ക് വേണ്ടി ഒരു പ്രീമിയം പെയ്മെൻ്റ് ഓർമ്മപ്പെടുത്തലുണ്ടായിരുന്നു പക്ഷെ ശക്തമായ കാറ്റും മഴയും കാരണം എനിക്ക് ഒരുപാട് വിള നഷ്ടം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തികം ആയിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയാണ് ഇപ്പം അപ്പോൾ ഈ പ്രീമിയം അടയ്ക്കുന്നത് മാറ്റിവെക്കാനായിട്ടെന്തെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ സൗകര്യം ചെയ്യാൻ കഴിയുമോ അതായത് വിള ഇറക്കിയില്ലെങ്കിലും വിള കൃത്യമായ വിള ലഭിക്കാത്തത് കാരണം സാമ്പത്തിക നഷ്ടം ഉണ്ടായി പക്ഷെ ഈ ഇൻഷൂറൻസ് ഉണ്ട് എങ്കിൽ കൃത്യമായും അടുത്ത തവണയെങ്കിലും നല്ല വിളവ് ഇറക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉള്ളൊരു വിശ്വാസം ഉണ്ട്